മുൻ കായികതാരങ്ങളെ സർക്കാർ എങ്ങനെയാണ് കേരള സർക്കാർ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് വലിയ അറിവില്ല പക്ഷേ പറയാൻ പറ്റും ഒരുപാട് നല്ല കളിക്കാരുണ്ടായിരുന്നു മുൻ കായിക താരങ്ങൾ അർഹിക്കുന്ന അതോരോ കളികൾ അനുസരിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ ക്രിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം ക്രിക്കറ്റിലാണ് ഒരു വ്യക്തി കൂടുതൽ അച്ചീവമെൻസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ആ കായിക താരത്തിന് കിട്ടുന്ന ബഹുമതിയെന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ അതേ ഒരു ഫുട്ബോളോ ബാസ്കറ്റ്ബോൾ പ്ലയറാണ് കളിക്കുന്നതെങ്കിൽ അത്രയും കിട്ടില്ല എന്നു വച്ചാൽ ഇന്ത്യയിൽ അത്രയ്ക്കും പോപ്പുലറായിട്ടുള്ളൊരു കളിയെന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ഒരിക്കലും അത് ഫുട്ബോളിലോട്ടോ മറ്റു കായിക രംഗങ്ങളിലോട്ട് വരുന്നില്ല ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്രിക്കറ്റിനു മാത്രമാണ് ഫുട്ബോളോ ബാസ്ക്കറ്റ്ബോളോ വോളിബോളോ മറ്റൊന്നിനും കൊടുക്കുന്നില്ല അപ്പോൾ എങ്ങനെ പറയാൻ പറ്റുമെന്ന് മുൻകായിക താരങ്ങൾക്ക് അർഹിക്കുന്ന നിലവാരം കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ അത് ഓരോ ക്രിക്കറ്റ് ഒരോ കളികളെ സംബന്ധിച്ചാണ് ഇരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് നമ്മുടെ കളികളാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഒരിക്കലും അതു പറയാൻ പറ്റില്ല എന്നു വച്ചാൽ ഒരു ലോകത്ത് ഫേമസ് ഫുട്ബോളാണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ക്രിക്കറ്റാണ് അപ്പോൾ ക്രിക്കറ്റ് തലത്തിൽ കളിക്കുന്നവർക്ക് ചിലപ്പം അതിനുള്ള ബഹുമതി കിട്ടുന്നുണ്ടാവാം പക്ഷേ ബാക്കിയുള്ള കായിക താരങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് സംശയമുണ്ട് കായിക താരങ്ങൾ നേരിടുന്ന വേറെ വെല്ലുവിളികൾ എന്നു പറയുന്നത് ഈ ഇഞ്ച്വറീസാണ് അവർക്ക് വരുന്ന ഇഞ്ച്വറീസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കളിയിലുണ്ടാവുന്ന മാറ്റം അതവർ വല്ലാണ്ടവരെ ബാധിക്കും അവരുടെ മെൻ്റലിനേയും ഫിസിക്കലിയും അത് ബാധിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ